നമ്മളുടെ അടുക്കളയിലൊക്കെ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഒരുപാടുണ്ട് അതായത് മിക്സി ഗ്രൈൻഡർ ഗ്യാസ് ഗ്യാസ് സിലിൻഡർ അവൻ അങ്ങനെയുള്ള ഒരുപാട് വസ്തുക്കളുണ്ട് പണ്ടൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതായത് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിക്ക് പകരം നമ്മൾ അരകല്ലാണ് ഉപയോഗിക്കുക അതായത് ഇപ്പം ദോശമാവ് അങ്ങനെയുള്ള അരക്കണമെങ്കിൽ അരകല്ലാണ് ഉപയോഗിക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ മിക്സിയിൽ അരക്കുന്നതിനേക്കാളും ടെയ്സ്റ്റ് ആ അരകല്ലിൽ അരച്ചിട്ട് ചുടുന്ന ദോശയ്ക്കാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെ അതു പോലെ തന്നെ ഗ്രൈൻഡർ ഗ്രൈൻഡറിൽ അതായത് ഗ്രൈൻഡർ ഗ്രൈൻഡറും ഈ മിക്സിയെ പോലെ തന്നെ അരിയരക്കാനും തേങ്ങ അരക്കാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് പിന്നെയെന്നുവെച്ചാൽ ഗ്യാസ് സിലിണ്ടർ ഗ്യാസ് സിലിണ്ടറെന്ന് വെച്ചുകഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ വിറകെല്ലാം കത്തിച്ചാണ് ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാക്കുക അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അന്നത്തെ കാലത്തൊക്കെ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം റെഡിയാകുമായിരുന്നു പക്ഷെ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസിൽ വെച്ച് വെച്ച് വെച്ച് പക്ഷേ നമുക്ക് സമയ ലാഭമാണ് കാരണം പെട്ടെന്നെല്ലാം ഉണ്ടാക്കാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗ്യാസ് സിലിണ്ടർ കൊണ്ടു തന്നെ ഉപകാരമാണ് പക്ഷെ വിറകിനാണെങ്കിൽ നമുക്ക് അങ്ങന പൈസ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട ഇപ്പോൾ ഗ്യാസിനാണെ നമ്മൾ പൈസ കൊടുക്കണം പിന്നെ അങ്ങനെ അതെ പോലെ തന്നെ അങ്ങനെ ഓരോ സാധനങ്ങളും അതായത് നമുക്ക് പണ്ട് എന്ന് പണ്ട് പണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലം വേഗം വേഗം നടക്കും ഫുഡ് കാര്യങ്ങളൊക്കെ വേഗം വേഗം ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അങ്ങനെ പിന്നെ ഗ്യാസ് വന്നതു കൊണ്ടു തന്നെ നമുക്ക് പിന്നെ അടുപ്പിലങ്ങനെ വേഗം വേഗം ഒന്നും വെക്കാനുള്ള ഇത് നമുക്കില്ല നമുക്ക് പറ്റില്ല